ഹലോ ഇത് കസ്റ്റമർ കെയറല്ലായിരുന്നോ ഞാൻ നിങ്ങളെ വിളിച്ചിരിക്കുന്നത് നിങ്ങൾ പ്ലാൻ റീചാർജ് ചെയ്യാൻ എപ്പോഴും ചെയ്യുന്നതാണ് ഇപ്പം കുറച്ച് നാളായിട്ട് ഒരു അഞ്ച് ആറ് മാസം ആയിട്ട് ഞാൻ ഈ സ്ഥിരം ചെയ്യുന്നൊരു പ്ലാൻ തന്നെയാണ് അത് ചെയ്തിട്ട് ഇപ്പം ഈ അഞ്ച് ആറ് മാസം ചെയ്തപ്പളും ഇപ്പോഴും എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പകുതി മുക്കാൽ സമയോം നിങ്ങളുടെ ഇതിന് ഒന്നീൽ റേഞ്ച്ണ്ടാവില്ല ഇല്ലെങ്കിൽ കോള് പോവത്തില്ല നിങ്ങൾ ഇതിൻ എനിക്കൊരു പരിഹാരം ഉണ്ടാക്കി തരണം ഞാൻ ഇപ്പം തന്നെ നിങ്ങളെ വിളിച്ച് ഒരു അഞ്ച് എട്ട് വട്ടം നിങ്ങൾ അടുത്ത് ഞൻ ഇതിൻ്റെ ഒരു പരാതി ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത്രേ നാളായിട്ടും എനിക്കിതിന് വേണ്ട നടപടികളോ അല്ലെങ്കി ഇതിന് വേണ്ട ഒരു കാര്യോ നിങ്ങൾ എനിക്ക് ചെയ്ത് തന്നിട്ടില്ല ഇപ്പത്തന്നെ ഞാനിപ്പോൾ ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ വട്ടമാണ് നിങ്ങളെ ഈ കസ്റ്റമർ കെയറിൽ വിളിച്ചിട്ട് ഞാൻ ഈ കംപ്ലൈൻറ്റ് പറയുന്നത് ഇത്രേം കാലം പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു നടപടികളും ഒരു കാര്യം പോലും എനിക്ക് വേണ്ടി ചെയ്ത് തന്നിട്ടില്ല ഇത്രേം പൈസ കൊടുത്തിട്ട് ഞാൻ നിങ്ങടെ ഈ റീചാർജ് എല്ലാ വട്ടം ചെയ്തിട്ടും ഏതേലും ഒരു വട്ടം എങ്കിലും റെഡിയാവുന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ചെയ്യുന്നത് ഇതിലും ഭേധം എനിക്ക് റീചാർജ് ചെയ്യാണ്ട് വേറെ എന്തേലും വഴി യൂസ് ചെയ്തിട്ടെനിക്ക് ഇൻ്റർനെറ്റെടുത്താൽ മതില്ലോ ഇത്രേം പൈസ മുടക്കീട്ട് നിങ്ങൾക്ക് വേണ്ടീട്ട് ഞാനീ റിചാർജ് ചെയ്യും എന്നിട്ട് ഒര ഒരു മെസ്സേജും പോവത്തില്ല അറ്റ്ലീസ്റ്റ് എന്തേലും ഒരു ആവശ്യത്തിന് ഒരാളെ വിളിച്ച് കഴിഞ്ഞാൽ പോലും കോള് പോവത്തില്ല നിങ്ങൾ ഇങ്ങനെ തൊടങ്ങാനാണെങ്കി പിന്നെ റീചാർജിൻ്റെ പ്ലാൻ്റെ പൈസ കൂട്ടേണ്ട വല്ല കാര്യം ഉണ്ടോ അത് കൂട്ടുന്നേന് നിങ്ങൾക്ക് മാസാ മാസം വേണെങ്കിൽ നിങ്ങൾ ഒരു പത്ത് രൂപ ഇരുപത് രൂപ നൂറ് രൂപ ഇങ്ങനെ വെച്ച് നിങ്ങൾ കൂട്ടൂല്ലോ അതേപോലെ നിങ്ങൾക്ക് ഇങ്ങനൊരു പ്രശ്നം പറഞ്ഞന്ന് കഴിഞ്ഞാൽ അതുംകൂടി നിങ്ങൾക്ക് ഒന്ന് സോൾവ് ചെയ്ത് തന്നൂടെ ആ അതൊക്കെ ആയിക്കോട്ടെ ഒന്നിലേലും ഞങ്ങൾ ഇത്രേം പൈസ കൊടുത്തിട്ട് റീചാർജെയ്ത്ര റീചാർജ് ചെയ്യുന്നതല്ലേ ആ അപ്പം അതിന് വേണ്ടപ്പെട്ട വേണ്ടതായിട്ടുള്ള കാര്യങ്ങളും ഒന്നില്ലെങ്കിൽ ഒന്നിലെ നെറ്റ് കിട്ടണം അതില്ല ഇല്ലെങ്കിൽ ആരേലും വിളിക്കാൻ നേരത്ത് റേഞ്ച് വേണം ഇതൊന്നും ഉണ്ടാവാണ്ട് പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളുടെ റീചാർജ് ഈ ഇടക്കിടയ്ക്ക് ചെയ്യണത് ഇതിലും ഭേധം എനിക്ക് നിങ്ങളുടെ ഈ റീചാർജ് മാറ്റീട്ട് വേറെ എന്തേലും വഴി യൂസ് ചെയ്താൽ പോരെ നിങ്ങളെ ഞാൻ ഇപ്പത്തന്നൊരു അഞ്ച് എട്ട് വട്ടം വിളിച്ചിട്ടുണ്ട് അഞ്ച് ആറ് വട്ടം എന്തായാലും ഞാൻ വിളിച്ചിട്ടുണ്ടാവും എല്ലാ വട്ടം നിങ്ങൾ പറയുന്നത് പരിഹാരം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഇപ്പം എന്താ പണി നടക്കുവാണ് ഇതൊക്കെയാണ് നിങ്ങൾ പറയുന്നത് ഇനി ഞാൻ ഇത് ആരോട വിളിച്ച് പറയേണ്ടെ നിങ്ങളെ കസ്റ്റമർ കെയറിനെ വിളിച്ച് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെയാണ് പറയുന്നത് ഇത് നിങ്ങൾ എന്തേലും ഒരു പരിഹാരം ഉണ്ടാക്കണം ആ ഓക്കെ ഞാൻ ഇനി ആ ഓക്കെ ഓക്കെ എന്നാ നിങ്ങൾ നിങ്ങളുടെ പരിഹാരം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിക്കേണ്ടതാണ്